ഹലോ ഇത് മറ്റേ കോൺടാക്ക് എടുക്കുന്നില്ലെ പെയിൻ്റിങ്ങ് കോൺട്രാക്റ്റെടുക്കുന്ന ആളല്ലെ ആ അപ്പെനിക്ക് ഒരു വീടിന് പെയിൻ്റടിക്കാനുണ്ടായിരുന്നു എൻ്റെ വീടിനാണ് അപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വരും രണ്ടു നില വീടൊക്കെയാണ് ആ അപ്പോൾ ഇതിന് പെയിൻ്റടിക്കണം എന്താ വെച്ചാൽ ഒരു ഇൻ്റീരിയലൊക്കെ ഏതൊക്കെ ഡിസൈനൊക്കെ ഇത് കിട്ടും ഇത് നമുക്കൊരു ഇൻ്റീരിയലൊക്കെ ഏതൊക്കെ ഡിസൈനിലൊക്കെ അടിക്കാം റൂമൊരു താഴെ ഒരു മൂന്നും മേലെയായിട്ടൊരു രണ്ട് റൂമായിട്ട് അങ്ങനത്തെയുള്ളു

ആ ഓക്കെ ഞാൻ മുമ്പിൽ ഉദ്ദേശിക്കുന്ന ഒരു പെയിൻ്റൊരു വൈറ്റാണ് ഞാൻ മുമ്പിൽ വൈറ്റാണ് ഉദ്ദേശിക്കുന്നത് ആ മുമ്പിലിപ്പോൾ ഇൻ്റീരിയല് അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലൊരു സെറ്റാക്കിത്തരണം ഒരു നല്ല ഡിസൈനിൽ നല്ലൊരു കളറിൽ ആ അപ്പോൾ ഒരു ബഡ്ജെറ്റ് അതിൻ്റകത്ത് വരും ഒരു ബഡ്ജെറ്റ് ഏകദേശം

അപ്പോൾ ഇത് കുറച്ചൊന്ന് ചെറുതായിട്ട് കുറയ്ക്കാൻ പറ്റില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ടൊക്കെ ഒന്ന് ചെയ്തുതരണം എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീട് എടുക്കുന്നതിന് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ലോണൊക്കെയുണ്ട് അപ്പോൾ ഇത് പെയിൻ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇത്രയും ബഡ്ജെറ്റ് വരുമ്പോൾ താങ്ങത്തില്ല അതാണ് ഓ പണിക്കാർക്കുള്ള ഫുഡൊക്കെ കൊടുത്തോളാം ഓ അമ്പത്തഞ്ചുപേർക്കല്ലേ അപ്പോൾ ഒരു എത്ര എത്ര മാസം എടുക്കും ഒരു മൂന്നോ നാലോ എത്രയാണ് ആ ഒന്നര മാസാം അല്ലെ അപ്പോൾ ഈ ഒന്നര മാസം കൊണ്ട് അപ്പോൾ എനിക്ക് വീടിൻ്റെ വീട് കൂടൽ അതിൻ്റെ ചടങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ എത്രയും പെട്ടന്ന് തീർത്തുതരാമോ ഒന്നരമാസം കൊണ്ടൊക്കെയെന്ന് പെട്ടെന്ന് തീർത്തു തരാം കേട്ടോ ആ ഓക്കെ അപ്പോൾ നല്ല നല്ല പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നല്ല നല്ല പെയിൻ്റൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ ഏതൊക്കെ പെയിൻ്റടിച്ചാൽ നമുക്കൊരു പിന്നെ വീട് വരുന്നത് ഒരു ഒരു റോഡ് ഒരു പോക്കറ്റ് റോഡ് അങ്ങോട്ട് സൈഡായിട്ടാണ് അപ്പോൾ പെട്ടെന്നൊരു ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ഒരു കളറിലൊക്കെ ഏതൊക്കെ കളറാണ് അവൈലബിളായിട്ടുള്ളത്

ആ ഓക്കെ അത്രയ്ക്കൊക്കെ നല്ലതല്ലേ ഇപ്പോൾ എന്നാൽ എന്നാൽ ശരി എന്നാൽ ഞാനെന്നാൽ ഇനിയിപ്പോൾ വീടിൻ്റെ ഇത് പണിയാവുമ്പോഴത്തേക്ക് കാശിനൊക്കെ വിളിക്കാം ഓക്കെ താങ്ക്സ്